കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപൊക്കത്തിൽ എൻ്റെ പാസ്പോർട്ട് ചെറുതായിട്ട് അഴുക്കായി പോയി അതിൻ്റെ പേ പേജുകളൊക്കെ കീറി അഴുകിപ്പോയി അപ്പം എനിക്കാണെങ്കിൽ ഈ ഒരു ഈ അടുത്ത ബുധനാഴ്ച്ച ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പം പാസ്പോർട്ട് ഇല്ലാതെ പറ്റില്ല അത് ഒരു ഒരു മാസത്തിനുള്ളിൽ എന്താണെങ്കിലും എനിക്ക് ആ സ്ഥലത്ത് എത്തിച്ചെല്ലണം അപ്പം എനിക്ക് പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കി കിട്ടണം താങ്കളുടെ അറിവിൽ ഇവി എങ്ങനെയാണ് നമുക്ക് ഈ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ചോദിച്ചാൽ മതിയോ അതോ ഞാൻ ഇനിയും വേറെ എന്തെങ്കിലും രേഖകൾ അവിടെ കാണിക്കണോ കാരണം എനിക്ക് ഈ യാത്ര ഭയങ്കര അത്യാവശ്യമായിരുന്നു എനിക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പം എനിക്ക് എന്തായാലും അടുത്ത രണ്ടുമൂന്ന് ആഴ്ച്ചക്കുള്ളിൽ എനിക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരണം എനിക്കിപ്പം ഈ പാ ഈ സമയത്തുതന്നെ പാസ്പോർട്ട് പോയതുകൊണ്ട് എനിക്കിപ്പം ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ശരിയാക്കണം അപ്പം പുതിയൊരു പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടിവരുമോ അങ്ങനെയാണെങ്കിൽ അതോ എനിക്ക് ഈ നമ്പർ ഈ പാസ്പോട്ടിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഒരിടത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ നമ്പർ കൊടുത്ത് എനിക്ക് പുതിയ ഒരെണ്ണം എടുത്തുതരുമോ അതിന് ഞാൻ ഇനി ഇപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്സ് ആണ് കൊടുക്കേണ്ടത് വല്ലതും അറിയാമോ